ഓ വിനോദസഞ്ചാരികള്ക്ക് പരീക്ഷിക്കാവുന്ന ഞങ്ങളുടെ ഒരു പ്രത്യേക വിഭവമുണ്ട് വിഭവം അതൊരു കൂട്ടം വിഭവങ്ങളുടെ ഒരു വിരുന്നാണ് ശരിക്കും പറഞ്ഞാല് സദ്യയാണ് നമ്മുടെ ഓണം എന്ന ഒരാഘോഷം മഹാബലി നാടു വാണീടും കാലം ആ സമയത്ത് ഞങ്ങള് മലയാളികള് വയ്ക്കുന്നൊരു പ്രത്യേകതരം ഒരു വിരുന്നു തന്നെയാണ് നമ്മുടെ ഒരു സദ്യ സദ്യയിൽ ആദ്യം പച്ചടി കിച്ചടി അങ്ങനെ കുറേ വിഭവങ്ങളാദ്യം വരും ഓലന് തോരന് പലവിധ തോരന് പലവിധത്തിലുള്ള കുറേ തോരന് അങ്ങനെ ഞങ്ങള്ക്ക് ഇഷ്ടം പോലെ കറികളും അതിനോടൊപ്പം തന്നെ മധുരമായ പായസം അതും രണ്ട് തരം പായസവും കിട്ടും പിന്നെ അങ്ങനെ കുറേയധികം കറികളും ചേര്ന്നിട്ടുള്ള ഒരു വിരുന്നാണ് സദ്യ ഭക്ഷണവിഭവം എന്നും പറയാം പക്ഷെ ഞങ്ങള്ക്കതിനെ വിഭവം എന്ന് വിളിക്കാനുള്ളൊരു അതിനേക്കാളുപരി ഒരു വിരുന്ന് തന്നെയാണ് ഞങ്ങള്ക്ക് വാഴയിലയില് ഓരോ കറിയും അതിന്റേതായ സ്ഥാനത്ത് വിളമ്പിത്തന്ന് അത് നമ്മള് ചമ്രം പടിഞ്ഞിരുന്ന് നമ്മുടെ പായവിരിച്ച് പായ വിരിച്ചിട്ടാണ് നമ്മളവിടെ ഇരിക്കുക ചമ്രം പടിഞ്ഞിരിക്കും അങ്ങനെ ഇരുന്നിട്ട് നമ്മള് അവിടെ വാഴയില നമ്മുടെ മുന്നില്ക്കൊണ്ടുവന്ന് വച്ചുതരും അങ്ങനെ വാഴയില കൊണ്ടുവച്ചുതരുമ്പോള് നമ്മള്ക്ക് ഓരോ ഓരോ വിഭവങ്ങളായിട്ട് സദ്യയില് ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് അത് തരും വിളമ്പിത്തരും അങ്ങനെയാണ് സദ്യ തയ്യാറാവുന്നത് കഴിക്കുവാന് അത് കഴിച്ച് കഴിയുമ്പോള് ആ ഇലയില്ത്തന്നെ പായസം ഇങ്ങനെ വിളമ്പി നമ്മള് അതിലേയ്ക്ക് പഴവുംകൂടി ചേര്ക്കും അപ്പോള് പഴവും പായസോം കൂടി കുഴച്ച് നമ്മള് വായിലേക്ക് വയ്ക്കുമ്പോഴുള്ളൊരു സുഖം ഹാ അടിപൊളിയാണ്